ഒരു കലാകാരനെപ്പോഴും സംസാരിക്കുന്നത് അവന്റെ ശരീരഭാഷയിലൂടെയാണ് അത് പാട്ടായാലും നൃത്തമായാലും അഭിനയമായാലും മറ്റേത് രീതി ആണെങ്കിലും പ്രസംഗമായാലും എന്ത് കലയുമാകട്ടെ ഒരു കലാകാരൻ സംസാരിക്കുന്നതവന്റെ വായ അവൻ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവന്റെ വാക്കുകളിലൂടെ മാത്രമല്ല ശരീരഭാഷയിലും കൂടെയാണ് പാടുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുഖഭാവങ്ങൾ കൊണ്ടും ശരീരഭാഷകൊണ്ടും നമ്മൾ നമ്മുടെ ഈയൊരു ആലാപനശൈലിയെ മെച്ചപ്പെടുത്താറുണ്ട് ചില അടിച്ചുപൊളി പാട്ടുകളൊക്കെ പാടുമ്പോൾ ആ പാട്ടിന്റെ താളത്തിനൊത്ത് ചുവടുകൾ വെയ്ക്കുവാനും ശരീരം ഒന്ന് ഇളക്കുവാനും അല്ലെങ്കിൽ കണ്ണുകളടച്ച് അല്ലെങ്കിലങ്ങനെയൊരു ഭയങ്കര പ്രസന്നമുഖഭാവത്തോടെ പാടുവാനും സാധാരണരീതിയിൽ ഈ പാട്ടുകാർക്ക് സാധിക്കുന്നുണ്ട് അതുപോലത്തന്നെ നമ്മൾപാടുന്നത് വളരെ എന്താ ട്രാജിയ്ക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്ത് സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിലങ്ങനെയുള്ളൊരു സോങ്ങാണ് എന്നുണ്ടെങ്കിൽ അതുപോലെതന്നെ മുഖഭാവം കൊണ്ട് പലരും സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഏത് ഏതൊരു കലയാവട്ടെ നമ്മൾ പാടുമ്പോഴാണെങ്കിലും അത് നൃത്തം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരഭാഷകൊണ്ടോ മുഖ ഭാവങ്ങൾ കൊണ്ടോ പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല കലാകാരന്മാരും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് ഒരടിച്ചുപൊളി പാട്ട് പാടുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് പാടുന്ന ആൾ പാടുകയും ഈ ഓഡ്യൻസിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് കയ്യടിച്ച് ആഹ്ളാദിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് ഈ വായ കൊണ്ടവർ പാടുന്നത് മാത്രമല്ല മുഖഭാവങ്ങൾ കൊണ്ടും മറ്റ് ശരീരഭാഷകൾ കൊണ്ടും സദസ്സിനെ ഒന്നടങ്കം ആകർഷിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഭാവം ഉൾക്കൊണ്ടുകൊണ്ടത് ചെയ്യാൻ വേണ്ടീട്ട് സാധിക്കുന്നുണ്ട് അടിച്ചുപൊളി പാട്ട് പാടുന്നപോലെയല്ല ഒരിക്കലും ഒരു മെലഡി ആയിട്ടുള്ള സോങ്ങ് പാടുക അല്ലെങ്കിൽ വളരെ എന്താ മെലങ്കൊളിക്ക് ആയിട്ടുള്ളൊരു സോങ്ങ് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുകയില്ല പാടുന്നത് അപ്പം സെലെക്റ്റ് ചെയ്യുന്ന ഓരോ സോങ്ങിനുമനുസരിച്ച് ഓരോ രീതിക്കുമനുസരിച്ച് ഈ പറയുന്ന വ്യത്യാസങ്ങൾ ഓരോ കലാകാരകനും പാട്ടു പാടുകയോ ഡാൻസ് ചെയ്യുകയോ എന്തുമാകട്ടെ ഓരോരുത്തരിലും ഭാവവ്യത്യാസങ്ങൾ സംഭവിയ്ക്കാറുണ്ട് അത് ആലാപനശൈലി ഒരു തരത്തിൽ മെച്ചപ്പെടുത്താറുമുണ്ട് നല്ലൊരടിച്ചുപൊളിപ്പാട്ട് കയ്യും കെട്ടി ഒരുമാതിരി മൈക്കിന്റെ സ്റ്റാൻറ്റിഡിൽ പിടിച്ചുവെച്ച് പാടിയാൽ അതൊരിക്കലും ആ ഒരു ഫീൽ പ്രേക്ഷകരിലേക്ക് ആസ്വാദകരിലേക്ക് എത്തില്ല അതേസമയം ഒരു ഒരു മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങ് ഭയങ്കരമായിട്ട് ചാടിത്തുള്ളിപ്പാടിയ അതും ഒരിക്കലും അപ്പീലിങ്ങായിട്ട് പ്രേക്ഷകരിലേക്കെത്തില്ല അപ്പം ഓരോ പാട്ടിനും അതിന്റെ ഓരോ രീതിക്കനുസരിച്ച് ഓരോ ഭാഷാശൈലി ഓരോ ശരീരശൈലിയും അതുപോലെത്തന്നെ മുഖഭാവവുമുണ്ട് അത് ആ രീതിയിൽ ഒരു ഗായകനിലുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഗാനാലാപനശൈലി അത് മെച്ചപ്പെടുത്താൻ സാധിക്കുകയുളളൂ